ആ ഞങ്ങളടെ പ്രദേശത്ത് വിനോദ സഞ്ചാരികൾക്കായാലും നാട്ടിലെ ആളുകൾക്കായാലും എന്തു സാധനങ്ങൾ വേണ്ടിക്കിലും ഒരു മാർക്കറ്റ് ഉണ്ട് അവിടെ പോയിക്കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് തേടി പോകേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ആ മാർക്കറ്റിൽതന്നെ ഉണ്ട് ഇപ്പോൾ പിന്നെ പച്ചക്കറികളായാലും പഴങ്ങളായാലും ബേക്കറി ഐറ്റംസുകളായാലും എന്തായിക്കോട്ടെ വീട്ടിൽ ഉള്ള വേറെ എന്തെങ്കിലും സാധനങ്ങളായിക്കോട്ടെ സ്റ്റീൽ പാത്രങ്ങൾ അങ്ങനെ എന്തു പ്ലാസ്റ്റിക്ക് പാത്രങ്ങൾ അങ്ങനെ എന്ത് ആയാലും അവിടെനിന്നുതന്നെ വാങ്ങാൻ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലും അവിടെ തന്നെ ഉണ്ട് അപ്പം പിന്നെ വേറെ എവിടെയും അങ്ങനെ പോകേണ്ട ആവശ്യം വരുന്നില്ല ആ മാർക്കറ്റിൽ പോയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ നമ്മൾ സാധനങ്ങളും വാങ്ങി വരാൻ പറ്റുന്നതാണ് പിന്നെ സാധനങ്ങളും അങ്ങനെ നല്ല ഗുണ നിലവാരം ഉള്ള സാധനങ്ങളാന്ന് അങ്ങനെ പിന്നെ മോശം എന്നു മോശമായ സാധനങ്ങളൊന്നും അവിടെ എന്നു കിട്ടാറില്ല പിന്നെ ഇപ്പം പൈസേൻ്റെ കാര്യത്തിലായാലും നമുക്ക് താങ്ങാൻ പറ്റുന്ന വില മാത്രമേ ഉണ്ടാവുന്നുള്ളു അങ്ങനെ കൂടുതൽ പൈസയൊന്നും വാങ്ങുന്നില്ല